ഹലോ ഞാൻ എൻ്റെ പേര് ജിൻസിയെന്നാണ് ഞാൻ കൊല്ലത്തുനിന്നാണ് സംസാരിക്കണത് ഞാനിപ്പം നിങ്ങളുടെ സ്വിഗ്ഗി ആ സ്വിഗ്ഗിയിൽ നിന്നൊരു പ്രോഡക്റ്റ് അതായതൊരു ഷവർമ്മ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞ സമയത്തിനല്ല എനിക്ക് ഫുഡ് ഡെലിവറി ബോയ് ഇവിടെ കൊണ്ട് വന്നത് അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു സംസാരിച്ചപ്പോൾ എന്റെയടുത്ത് പറഞ്ഞിരുന്നത് അവിടെ ഫുഡുണ്ടാക്കാൻ താമസിച്ചു അതുകൊണ്ടാണ് ലേറ്റായയന്നത് നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടീട്ടായിരിക്കുമല്ലോ സർ വെയ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ എനിക്കിപ്പം അറിയേണ്ടത് എന്താണെന്നു വച്ചാൽ നമ്മളിപ്പം തിരിച്ച് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് ആ ഞാൻ കൊടുത്ത പൈസ എനിക്ക് തിരിച്ച് കിട്ടുമോ അതായത് എനിക്ക് ആ സാധനം ഇപ്പോൾ വേണ്ട അതിന്റെ ഒരു പോളിസിയെക്കുറിച്ച് എനിക്ക് അതൊന്ന് പറയാമോ അതായത് ഞാൻ ഞാനിപ്പോൾ കൊടുത്ത പൈസ എനിക്ക് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നറിഞ്ഞാൽ മതി കാരണം ഇത്രയും ലേയ്റ്റായ കാരണം എനിക്ക് സാധനം ആവശ്യമില്ല ഗസ്റ്റ് വന്നിരുന്നത് കൊണ്ടാണ് ഞാൻ സാധനം ഓർഡർ ചെയ്തത് പക്ഷേ അത് എനിക്ക് പറഞ്ഞ സമയത്ത് തന്നെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കതിന്റെ ആവിശ്യമില്ല സാർ അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അതിന്റെ ആവിശ്യമില്ല അപ്പം ദയവായിട്ട് അത് തിരിച്ചെടുത്തിട്ട് എനിക്കതിന്റെ ഒരു ക്യാഷ് തന്നാലും മതി എന്നാലും അതുകൊണ്ടൊരു സാറിന്റെ ഒരു അവിടുത്തെ ഒരു രീതി റിട്ടേൺ പോളിസിയെക്കുറിച്ചൊരു ചെറിയൊരു ഇത് പറഞ്ഞു തന്നാൽ വളരെ സഹായമായിരുന്നു കാരണം എനിക്ക് ഡെലിവറി ബോയി ചെയ്ത സമയത്തിന് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ സാർ അതുകൊണ്ടാണ് പ്ലീസ് ദയവായിട്ട് ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു പോളിസിയെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത് വേറൊന്നും ഞങ്ങൾക്ക് വേണ്ട അവിടുത്തെ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ തിരിച്ച് കൊടുത്താൽ നമുക്ക് റിട്ടേൺ പോളിസി റിട്ടേൺ പൈസ കിട്ടുമോ അതോ സാധനം നമ്മൾ തന്നെ എടുക്കേണ്ടി വരുമോ അത് മാത്രം നമുക്കറിഞ്ഞാൽ മതി